എൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഞാൻ പ്രധാനമായും ഭക്ഷണ രീതിയിലൂടെയാണ് ശ്രമിക്കുന്നത് കാലത്തും അതായത് എണീറ്റ ഉടനെ ഒരു സാധാരണ മധുരമില്ലാതെ ചായയിലൂടെയാണ് എൻ്റെ ഭക്ഷ്യരീതി തുടങ്ങുന്നത് അതായത് കൃത്യ സമയത്തുള്ള ഭക്ഷണം കഴിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു അമിതമായ ഭക്ഷണങ്ങൾ എപ്പോഴും ഒഴിവാക്കാനും ശ്രമിക്കുന്നു അധികം എണ്ണ ഉള്ളതും അധികം കൊഴുപ്പുള്ളതുമായ ഭക്ഷണം പ്രധാനമായും ഒഴിവാക്കണം അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് കുറക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പ്രോസെസ്സഡ് ഫുഡ്സ് അതായത് എന്നാ നമ്മുടെ ബേക്കറിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ കൊക്കക്കോള മുതലായ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ ഒഴിവാക്കാൻ ഞാൻ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഞാൻ പിന്നീട് ഞാൻ ശാരീരിക വ്യായാമത്തിലൂടെയാണ് എൻ്റെ ശരീരത്തെ ഞാൻ ശ്രദ്ധിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ വളരെ നന്നായി ശരീരം അനങ്ങി വർക്ക് ഔട്ട് ചെയ്യുന്നതാണ് ഓരോ ശരീര ഭാഗത്തിനാവശ്യമായ ശക്തിയും ബലവും അത് പ്രധാനം ചെയ്യുന്നു വ്യായാമം ഇല്ലാത്ത ശരീരം വളരെയേറെ അസുഖങ്ങൾ വിളിച്ച് വരുത്തുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വ്യയാമം ചെയ്യുന്നത് പിന്നീട് ഞാൻ ചെയ്യുന്നത് അച്ചടക്കമുള്ള ഉറക്കവാണ് ഒരു ദിവസം ഞാൻ എട്ട് മണിക്കൂറ് ഉറങ്ങാൻ ശ്രദ്ധിക്കുന്നു നില തെറ്റിയുള്ള ഉറക്കം നമ്മുടെ ശരീരത്തിനെയും മനസിനെയും ബലം ശരീരത്തിൻറ്റെം മനസിൻറ്റെം ബലം കുറയ്ക്കുന്നു